എൻ്റെ മാതാപിതാക്കളും അതുപോലെതന്നെ അവരുടെ മാതാപിതാക്കളും ഒന്നും അത്രയൊന്നും പഠിച്ച ആളുകൾ അല്ല എൻ്റെ അച്ഛനും അമ്മയും പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ

ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് അപ്പം അച്ഛനും അമ്മയ്ക്കും പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് വേണ്ട സൗകര്യങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല അതായത് വസ്ത്രങ്ങൾ ഇടാൻ ഉണ്ടായിരുന്നില്ല പഠിക്കാന് അതുപോലെതന്നെ ഭക്ഷണത്തിന് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത് അപ്പം പഠിക്കുക എന്നുള്ളത് അവിടെ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പഠനത്തിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാണ്ട് പണിയെടുത്തിട്ട് ജീവിതം പുലർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അന്ന് കാലത്ത് ഉണ്ടായിരുന്നത് അമ്മ എന്ന് പറയുന്ന സമയത്ത് പെൺകുട്ടികൾ അധികം പഠിക്കേണ്ട എന്ന് പറയുന്ന ഒരു വീട്ടിലാണ് ജനിച്ചത്

പോകുകയാണ് ചെയ്തിട്ടുള്ളത് വിദേശത്താണ് പിന്നീട് അവിടെ നിന്ന് പണിയെടുത്തതുകൊണ്ടാണ് ജീവിതം പുലർത്തുന്നത് അല്ലെങ്കിൽ കുടുംബം നോക്കുകയും ചെയ്യുന്നത് അപ്പം അവരുടെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് കാലത്ത് കിട്ടുന്ന ഒരു സൗകര്യം അന്ന് ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴത്തെ സ്ഥിതി എന്നു പറഞ്ഞു കഴിഞ്ഞിട്ടാൽ അവരുടെ മക്കളായിട്ടുള്ള എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് അതായത് ഗ്രാജുവാറ്റ് ആയി പോസ്റ്റ് ഗ്രാജുവാറ്റ് ആയി അത് പോലെ തന്നെ ബി എഡ് പഠിച്ചു കൊണ്ട് ഇപ്പോൾ ഒരു ടീച്ചർ എന്ന്

എന്താ പറയുക കല്യാണത്തിനോടുള്ള ആ ഒരു മനോഭാവം ഒന്നും ഇല്ലാണ്ട് തന്നെ എന്നെ പഠിപ്പിച്ച് ജോലി ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അച്ഛനും അമ്മയ്ക്കുമുള്ളത് അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആ ഒരു ജീവിതരീതി നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതെ ഒരാൾക്ക് മുന്നോട്ടു പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് എല്ലാം മനസ്സിലായി വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നത് അപ്പോൾ അതുവഴി ഒരുപാട് ആൾക്കാരുടെ പല ജീവിതരീതിയും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ജീവിത എന്താ പറയുക ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നു അതുപോലെ തന്നെ നല്ല നല്ല സ്കൂളിലാണ് വിട്ടിട്ടാണ് ഉന്നത പഠനത്തിനൊക്കെ പോകുന്നത് ഇപ്പം സാധാരണ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ മാത്രമേ കുട്ടികൾ പഠിക്കാറുള്ളൂ ഇന്ന് യു കെ പോലുള്ള വിദേശത്തുള്ള രാജ്യങ്ങളിലേക്ക് വരെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്